പഞ്ചായത്ത് പ്രസിഡന്ഡ് ആരാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിന് ബേബിയാണ്

പത്തുമൂന്നൂറ് മീറ്റര് ദൂരം അത്രയേ ഉള്ളു അപ്പം അവരോടൊക്കെ നല്ലോണം സംസാരിച്ചു ഇടപഴകിയിട്ടൊക്കെ ഉണ്ട് നല്ലൊരു മനുഷ്യനാണ് നല്ല സ്വഭാവം ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് എല്ലാവരും കൂടിയാണ് പിന്നെ ജയിപ്പിച്ചു വിട്ടത് അപ്പം അവരെ കൊണ്ട് നല്ല ഉപകാരം തന്നെയാണ് അവരെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും അതായത് അയാൾ അയാളുടെ ജോലിയായിട്ടുള്ള അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലോണം ആത്മാര്ത്ഥമായിട്ട് ജോലി ചെയ്യുന്നതാണ് ഇപ്പം എന്താ പറയാ കോഴയൊക്കെ മേടിക്കുന്നുണ്ടാവും എന്നാലും പിന്നെ അതേപോലെ നമുക്ക് റോഡൊന്നും വലിയ സുഖം ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് റോഡൊക്കെ നല്ല റെഡിയാക്കി തന്നു ഇങ്ങനെയുള്ള അതായത് നമുക്ക് വീട് അങ്ങനെയുള്ളവർക്ക് വീട്ടിലൊക്കെ വീടുകളൊക്കെ റെഡിയാക്കി തന്നു ഒക്കെ അങ്ങനത്തെ ഉപകാരങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട്